ഞാന് കഴിഞ്ഞ ദിവസം ട്രാവൽ ഏജൻസിയെ വിളിച്ചിട്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ചെന്നൈക്ക് പോവനായിരുന്നു കോഴിക്കോട് നിന്ന് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞാനാ പോവണ്ട അത്രയും ദൂരം ഫ്ലൈറ്റിന് പോകാമെന്ന് കരുതി അതൊന്നു പിന്നെ കാൻസലു ചെയ്തായിരുന്നു ഞാനവർക്കു എൻ്റെ അക്കൗണ്ട് വഴി ഒരു അയ്യായിരം രൂപ അവരുടെ ക്യാബിലെ ഏജൻസിയിലേക്ക് ഒരയ്യായിരം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കാ പൈസ തിരിച്ച് വേണം നിങ്ങള് എൻ്റെ അക്കൗണ്ടിലോട്ട് ഫോൺപേ ചെയ്താലും ഗൂഗിൾ പേ ചെയ്താലും അല്ലേൽ അക്കൗണ്ടിലേക്ക് ട്രാൻസഫറു ചെയ്താലും കുഴപ്പമില്ല ഞാൻ അക്കൗണ്ട് ഡിറ്റെയിൽസ് നിങ്ങൾക്ക് ഇട്ടുതരാം ഞാനത് പിന്നെ ക്യാൻസലു ചെയ്തായിരുന്നു പക്ഷേ ഞാൻ ഓൾറെഡി പേ ചെയ്തതുകൊണ്ടാണ് ആ പൈസ എനിക്ക് വേണം എന്ന് പറയുന്നത് അയ്യായിരം രൂപയുണ്ട് നിങ്ങളിന്ന് വൈകുന്നേരമോ അല്ലേൽ നാളെ ഉച്ചയ്ക്കുള്ളിലാ പൈസ എനിക്ക് തിരിച്ച് റിട്ടൺ അയച്ചു തരണം